ഇപ്പോൾ തന്നെ കേരളത്തിൽ പല രീതിയിലുള്ള തൊഴിലധിഷ്ഠിത പരിശീലനങ്ങളൊക്കെ നടക്കണുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നൈപുണ്യ വികസന പദ്ധതികൾ ആ പിന്നെ ഡബ്ല്യൂ എസ് എസിൻ്റെ പല രീതിയിലുള്ള കോഴ്സുകളും കാര്യങ്ങളുമൊക്കെ നടക്കണുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ ഒരു കോഴ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതായത് ഒരു സി സി ടിവി ഇൻസ്റ്റാളിങ്ങിനു വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് കോട്ടയത്ത് വച്ചായിരുന്നു അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ളൊരു തൊഴിലധിഷ്ഠിത കോഴ്സും കാര്യങ്ങളുമൊക്കെ ആണ് ഇപ്പോൾ ഡബ്ല്യൂ എസ്എ എസില് വരുന്നത് ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങ് അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഐ ടിൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതായത് ട്രെഡ്സ്മാൻ അതായത് ഇപ്പോൾ സിവിലും കാര്യങ്ങളുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസി മെക്കാനിക്ക് ആ പിന്നെ മെക്കാനിക്കൽ പരമായിട്ടുള്ള ഓട്ടോ മൊബൈൽ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഹോട്ടൽ മാനേജ്മന്റ് ഫീൽഡ് അങ്ങനത്തെ പല രീതിയിലുള്ള അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേരളത്തിൽ ഉണ്ട്